ഹലോ ആ ആ ഹലോ വാച്ച്മാൻ അല്ലേ ആ ആ പുതിയതായിട്ട് വന്ന ആ ആ ആ ഞാൻ ആ ഞാൻ കോളേജിൻ്റെ ചെയർമാനാണ് ആ ആ ആ നമ്പറ് ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മള് കുറച്ച് പ്രശ്നങ്ങളുണ്ട് നമ്മളുടെ കോളേജിലെ പുറത്ത് നിന്ന് ഒരുപാട് ആൾക്കാര് രാത്രി ആണവര് രാത്രി വന്നിട്ട് നമ്മുടെ കോളേജിൻ്റെ കോമ്പൗണ്ട് കയറിയിട്ട് സാധനങ്ങളൊക്കെ നശിപ്പിക്കുക ക്ലാസില് കയറിയിട്ട് പ്രൊജക്ടറ് ടി വി ഇങ്ങനത്ത കാര്യങ്ങൾ ഒക്കെ നശിപ്പിക്കുക പിന്നെ അവര് പുറത്ത് നിന്ന് സാധനങ്ങള് ഭക്ഷണങ്ങള് കൊണ്ടുവന്ന് കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റുകൾ ഒക്കെ നമ്മുടെ കോമ്പൗണ്ടില് കൊണ്ടുവന്ന് ഇടുക അങ്ങനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിപ്പോൾ ഈയിടെ ആയിട്ട് ഈ ഒര് രണ്ടായ്ച്ചയായിട്ട് കൂടി വരുന്നുണ്ട് ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത്തിരി കൂടുതലാണ് അപ്പോൾ അതാണിപ്പോൾ നമ്മള് പുതിയ വാച്ച്മാനെയും കൂടി ഒരാളെയും കൂടി നിയമിച്ചത് അപ്പോൾ ഇനി ആ ആ ആ ആ അപ്പോൾ അവരെന്താന്ന് വെച്ചാൽ നമ്മള് ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ വാണിംഗ് ചെയ്തിട്ടും അവർക്ക് മാറ്റം ഒന്നും ഇല്ല ആ ഒരു അവരുടെ ആ പ്രവണത കൂടി വരുന്നതെ ഉള്ളൂ ആ അപ്പോൾ ഇനി ആ ആ ആ ആ ഓക്കെ അപ്പോൾ രാത്രി രാത്രി നിങ്ങള് ഡ്യൂട്ടിക്കൊരാള് ഇങ്ങനെ ഇങ്ങനെ ഷിഫ്റ്റ് എടുത്താലും കുഴപ്പമില്ല ഒര് പന്ത്രണ്ട് മണി ഒര് മണി വരെ ഒരാള് നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റേ ആളെ ആക്കിയാലും മതി അങ്ങനെ രാത്രി ആ ആ എല്ലാ ഒര് സറൗണ്ടിംഗ്സും എല്ലാ പരിസരത്ത് കൂടി നിങ്ങളുടെ കണ്ണ് ഉണ്ടാകണം ആ ആ ആ പിന്നെ അന്യ വാഹനങ്ങൾ ഒരുപാട് ആ പറഞ്ഞോളൂ ആ ഹോ ആ ആ ഉണ്ട് ഹോസ്റ്റലില് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റലുണ്ട് അപ്പോൾ അവര് കറക്റ്റ് സമയത്തിനല്ല ആറ് മണിക്കാണവർക്ക് കയറാനുള്ള സമയം അപ്പോൾ അത് കഴിഞ്ഞിട്ടും കുട്ടികൾ പുറത്ത് കൂടെ ഇറങ്ങി നടക്കുന്നതും ഒക്കെ കാണുന്നുണ്ട് ആ അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ആ ആ ആ ആ ആ ആ ആ ആ അതെ അവര് അതും കൂടി ആ ആ എന്തായാലും ശ്രദ്ധിക്കണം പിന്നെ ഐ ഡി കാർഡ് നിർബന്ധായിട്ടെല്ലാവരും ധരിക്കുന്നുണ്ടോ നമ്മുടെ ചിലരുടെ അന്യ വാഹനങ്ങള് വരുന്നുണ്ടോ പിന്നെ കോളേജിൻ്റെ ആ ടൈമില് ആരെങ്കിലും ആ കോളേജ് കോമ്പൗണ്ടിന് പുറത്തിറങ്ങിയിട്ട് വണ്ടിയിൽ കയറി പോവുന്നുണ്ടോ അങ്ങനെ ഉള്ള കാര്യങ്ങൾ എല്ലാം അതൊന്ന് ആ ശ്രദ്ധിക്കണേ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പുറത്ത് നിന്നും വരുന്നുണ്ട് നമ്മുടെ കോളേജിലെ കുട്ടികളെ കുറിച്ച് ആ അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഒക്കെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണമായിരുന്നു